ആ അതെ

ആ പറഞ്ഞോളു പറഞ്ഞോളു

ആ ആ ആ എന്തുപറ്റി ഉണ്ടല്ലോ സാർ അല്ല ഞങ്ങൾ അല്ല നമ്മുടെ കസ്റ്റമേഴ്സ് ആരുവന്ന് കഴിഞ്ഞാലും അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ടേബിള് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തയിനുശേഷം മാത്രമേ അടുത്ത കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിച്ചിരുത്തു ആ

സാർ അങ്ങനെയുണ്ടാവാൻ ചാൻസില്ല നമ്മുടെ കസ്റ്റമേഴ്സ് സാറൊന്ന് ക്ഷമിക്കണം ഇത് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനി ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കാം ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്തായാലും ഇതുപോലത്തൊരു അനുഭവം ഇനിയാർക്കും ഉണ്ടാവില്ല അത് ആരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണെന്ന് ഞങ്ങളൊന്ന് പരിശോധിച്ചു നോക്കട്ടെ എന്തൊക്കെയായാലും അല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് വൃത്തി അവർക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുള്ളൊരു ഹാപ്പിനെസ് ഇതെല്ലാമാണല്ലോ പ്രാധാന്യം ഞങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടുതന്നെയാണ് അപ്പോൾ ഇനിയൊരിക്കലും ഇങ്ങനത്തെയൊരു അനുഭവം ആർക്കും ഉണ്ടാവില്ല തീർച്ചയായും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും ഓക്കെ ആ ഓക്കെ സാർ ശരി